ഞാൻ കളിക്കാൻ പോകുന്ന ഡാൻസില് ഞാൻ തന്നെ എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ അതുതന്നെ തെരഞ്ഞെടുക്കത്തുള്ളൂ എന്തിനാണ് മീൻസ് ഞാൻ കളിക്കുന്നത് എനിക്ക് അത് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് അതായിരിക്കണം ആ ഈ പാട്ടിനെ എനിക്ക് കളിക്കാൻ പറ്റും അല്ലാ എല്ലാ പാട്ടിന് എനിക്ക് കളിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പാട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടിനെ എനിക്ക് കളിക്കാൻ പറ്റും അല്ലെങ്കിലും ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കളിക്കുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ എന്നെ ഞാൻ കളിക്കുമ്പോൾ എല്ലാവരും എന്നെ കാണുമല്ലോ അപ്പം അവർക്ക് ഒരു എൻജോയ്മെൻറ്റ് ഒരു വൈബിനായി ആ നമ്മൾ അതിനെ നമ്മൾ അതിന് നമ്മൾ ഈ ചെയ്യണം അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നോക്കി അപ്പോൾ അതാണ് ഞാൻ ഇനി ഞാൻ കളിക്കാൻ പോകുന്ന ഡാൻസിൽ അതാണ് ഞാൻ ഞാൻ തെരഞ്ഞെടുക്കത്തുള്ളൂ ഞാൻ തെരഞ്ഞെടുക്കത്തുള്ളൂ ഞാൻ എന്താണ് കളിക്കുന്നത് ഞാൻ എന്താണ് ഞാൻ കളിക്കാൻ പോകുന്നത് എനിക്ക് താല്പര്യം ഉണ്ടാവണം എനിക്ക് താല്പര്യം ഉണ്ടാവണം പിന്നെ ഞാൻ കളിക്കാൻ പോകുന്ന പാട്ട് എനിക്ക് ഈ പാട്ടായിരിക്കും ആയി പിന്നെ എങ്ങനെയുള്ള പാട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഈ നമ്മൾ എനിക്ക് എന്താണ് അവർ ഈ ഈ ഡാൻസ് നീ കളിക്കണം അല്ലെങ്കിൽ ഇപ്പം വേറെ എവിടേ കോളേജിലോ എന്തെങ്കിലും ഉത്സവമോ എന്തെങ്കിലും വരുമല്ലോ ആ സമയത്ത് ഇപ്പം അമ്പലത്തിൽ അമ്പലത്തിലാണെങ്കിൽ ദേവി അപ്പോൾ ഡിവോഷണൽ സോങ്ങ് ദേവി ഭക്തിയായ ഒരു സോങ്ങ് പാടണം കളിക്കണം

കളിച്ചു കാണിച്ചു കളിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടും ഇഷ്ടപ്പെട്ട ഡാൻസും ഈ രീതി കളിക്കാനും നമുക്ക് താല്പര്യം ഉണ്ടാവണം അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്നത്